ജെ എൽ ജി ജോയിൻ്റ് ലയ്ബലിറ്റി ഗ്രൂപ്പ് ജോയിൻ്റ് ലയ്ബലിറ്റി ഗ്രൂപ്പ് നാല് അഞ്ച് പേർ കൂടുന്ന സംരംഭവും കൃഷിയെ തുടങ്ങുന്നതിന് വേണ്ടി കൂടി ജോയിൻ്റ് ലയ്ബലിറ്റി ഗ്രൂപ്പുകൾ രൂപീകരിച്ചാൽ സർക്കാർ സബ്സിഡിയോടുകൂടിയുള്ള വായ്പകൾ ലഭിക്കും ഈ സംരംഭം തുടങ്ങുന്നതിനു വേണ്ടിയുള്ള ധനസഹായം ബാങ്ക് വഴി ലഭിക്കും കൃത്യസമയത്ത് തിരിച്ചടച്ചു തുടർന്നുകൊണ്ടു പോകാൻ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ വളരെ സഹായകരമായ ഒരു പദ്ധതിയാണ് ജോയിൻ്റ് ലയ്ബലിറ്റി ഗ്രൂപ്പ് ജെ എൽ ജി മറ്റൊരു പദ്ധതിയാണ് ജനങ്ങൾക്ക് എല്ലാം ജനങ്ങൾക്കും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് റേഷൻ റേഷൻ ഒരു രൂപ രണ്ട് രൂപ നിരക്കിൽ ഒരു ഒരു വ്യക്തിക്ക് ഒരു മാസം നാലു കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ലഭിക്കുന്നുണ്ട് അത് ഒരു വലിയ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് മറ്റൊന്ന് ഗ്യാസ് ഗ്യാസ് സിലിണ്ടർ വർഷത്തിൽ ആറ് സിലിണ്ടർ കിട്ടുന്നു സബ്സിഡി റേഷൻ അക്കൗണ്ടിൽ വരുന്നു അതും വളരെ ഗുണപ്രദമായ ഒരു പദ്ധതിയാണ് അയൽക്കൂട്ടങ്ങൾ അയൽക്കൂട്ടങ്ങൾ കൂടി സർക്കാരിൻ്റെ സബ്സിഡികളുള്ള വിവിധ വായ്പകൾ ലഭിക്കുന്നു നമുക്ക് നിക്ഷേപങ്ങൾ ഇറക്കി നിക്ഷേപ സമാഹരണം നടത്തുന്നു അതിൽ നിന്ന് വായ്പകൾ എടുക്കാൻ പറ്റുന്നു മറ്റു ബ്ലേഡ് അന്യ പലിശക്കാർ അന്യായ പലിശക്കാർ അന്യായ പലിശക്കാരിൽ നിന്നും സംരക്ഷിക്കപെടുവാനുള്ള സാഹചര്യങ്ങൾ കുടുംബശ്രീ വഴി ലഭിക്കുന്നു കുടിവെള്ള പദ്ധതി ശുദ്ധജലം പൈപ്പിലൂടെ എത്തുന്ന പദ്ധതിയാണ് ചുരുങ്ങിയ തുകയ്ക്ക് പ്രതി മാസം ബില്ലടച്ച് നമുക്ക് ശുദ്ധജലം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതും ഒരു പ്രയോജനകരമായ പദ്ധതിയാണ്